മലയാള ഭാഷയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം കേരളത്തിൽ മാത്രാണല്ലോ മലയാള ഭാഷയുള്ളത് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയൊന്നും ഇല്ല കേരം തിങ്ങും നാട് കേരളം കേരളത്തിൻ്റെ മാതൃഭാഷയാണ് മലയാളം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് മലയാളത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല മലയാളഭാഷ നമ്മൾ സംസാരിച്ചാണല്ലോ മലയാളഭാഷ എന്ന് പറയുന്നത് അക്ഷരമാലകൾ അ ആ ഇ ഈ പിന്നെ ക ഖ ഗ ഘ ങ്ങ പിന്നെ ചിഹ്നങ്ങൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്നതാണ് മലയാളം എന്നത് കൊണ്ട് അർഥമാക്കുന്നത് അങ്ങനെ ഓരോ വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ മലയാളം എന്ന വാക്ക് ഉണ്ടായത്